ഇപ്പോൾ വ്യത്യസ്ത ഋതുക്കളിൽ കാലാവസ്ഥ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ വേനൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ മെയ് മെയ് ഒരു പകുതിവരെയൊക്കെയാണ് കൂടുതലായിട്ടും വേനൽക്കാലം സാധാരണ ആയിട്ട് ഉണ്ടാവുക എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് വച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ചൂട് കാര്യങ്ങളൊക്കെ ആയത്കൊണ്ട് സ്കൂളുകളും കാര്യങ്ങൾക്കൊക്കെ അവധി ആണ് ആ സമയങ്ങളിൽ അതായത് ജനുവരി മാർച്ച് ഏപ്രിൽ ആ മാസങ്ങളിൽ ജ കൂടുതല് സ്കൂളുകൾ കാര്യങ്ങളൊക്കെ അവധിയായിരിക്കും മാർച്ച് ഒരു ഒരു അവസാനം തൊട്ട് പിന്നെ മെയ് മെയില് ഫുള്ള് ലീവ് ആയിരിക്കും രണ്ട് മാസം അപ്പം ആ രണ്ട് മാസം ഭയങ്കര കനത്ത ചൂടായത് കൊണ്ടാണ് കൂടുതലായിട്ടും സ്കുളുകളില് ലീവ് കൊടുത്തേക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പിള്ളേർക്ക് പഠിക്കാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയത് കൊണ്ടും അപ്പോൾ രണ്ട് മാസം വെക്കേഷനും കാര്യങ്ങളൊക്കെ അപ്പഴാണ് കൊടുക്കാറുള്ളത് പിന്നെ എന്ന് പറഞ്ഞാല് ശീതകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക നമുക്കിപ്പം മഞ്ഞ് മഞ്ഞുക്കാലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശീതകാലത്തിൽ വരും വസന്തകാലം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാ പൂക്കള് ഉണ്ടാവുന്ന കൂടുതലും ആ വസന്തകാലം അങ്ങനത്തെ കാലങ്ങളിൽ ആയിരിക്കും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ കാലങ്ങളിൽ കാലഘട്ടങ്ങളിലാണ് ഉണ്ടാവുക